റ്റെൻന്ത് ഡീലെ ടീച്ചറല്ലേ ഞാനേ മിസ്സിൻ്റെ ക്ലാസ്സിലെ അമൃതേടെ അമ്മയാണ് അതെ അതെ ഞാ എൻ്റെ പേര് രാധാന്നാണ് ഞാനേ കുട്ടിക്കൊരു ആറ് ദിവസത്തെ ലീവ് വേണമായിരുന്നു ഞങ്ങൾ കുടുമ്പെല്ലാവരും കൂടീട്ട് മൊത്തത്തിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് ചെറിയൊരു ലീവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ ആയി എല്ലാവരും കൂടീട്ട് അവൾടെ അച്ഛൻ ഗൾഫിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവൾ മാത്രം ഇല്ലാതാവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോവാൻ മൊത്തത്തിലൊരു പ്ലാനിട്ടതാണ് അപ്പോൾ ക്ലാസ്സൊള്ള ദിവസമായി പോയി പ്ലാനിട്ടപ്പോൾ വന്നത് അത് എ എക്സാമോ എക്സാമൊക്കെ ആവുമ്പഴേക്കും മിസ്സേ ഞങ്ങൾ ശരിയാക്കിയെടുത്തോളാം അവളിപ്പോൾ ഞങ്ങൾ ട്യൂഷനിലേക്ക് അയക്കുന്നുണ്ട് അവൾ എക്സാമൊക്കെ ആവുമ്പഴേക്കും ഏകദേശം ഒക്കെയായി വരും ഒരാറ് ദിവസത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുറച്ച് ലോങ്ങ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതാണീ ആറ് ദിവസം വരുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ പേരൻസാണന്നുണ്ടെങ്കിൽ അച്ഛനാണന്നുണ്ടെങ്കിൽ പെട്ടന്ന് പോവേം ചെയ്യും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാനും പറ്റൂല വെക്കേഷൻ ആവുഓളം വെയിറ്റ് ചെയ്യാൻ സമയമില്ല അച്ഛൻ ഗൾഫിൽ സൗദി അറേബ്യാലാണ് അപ്പം അവിടെന്നിപ്പോൾ ഒരു ഒരുമാസത്തെ ലീവില്ല ഒരു പത്തിരുപത് ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ് അപ്പോൾപ്പിന്നെ ബാക്കിയെല്ലാ കുട്ടികളും സ്കൂളിലൊക്കെ ഞങ്ങൾ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടേ അപ്പോൾ അവരെ ആ വിവരം അറീക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ മോടെ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വണ്ടീം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കായിരുന്നു ഞങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡൽഹി ആഗ്ര ആ ഭാഗത്താണ് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ ആദ്യം സ്കൂളിന്നുള്ള വിവരം അറിയണല്ലോ

മൂ മൂന്ന് ദിവസമൊക്കെ ഡൽഹി ആഗ്ര പൂവാന്ന് പറ്റൂലെന്ന് വെച്ചാൽ ട്രെയിൻ യാ അതാ കുട്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതാണ് പഠിത്തത്തിൽ കുറച്ച് ബാക്ക് കുട്ടി കുറച്ചൊരു ഡിപ്പ്രഷൻ്റെയൊരു അഫ അഫയറും കാര്യങ്ങളുമൊക്കെ ആയിട്ടയിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ വന്നു ഒരു ചതീലൊക്കെ പെട്ടു

ഞങ്ങളെ ആ അതാണ് മിസ്സേ വീട്ടിന്ന് കൗൺസലിങ്ങൊക്കെ കൊടുത്ത് ഏകദേശം അവൾ ആ ഒരു സ്റ്റേജിന്ന് ഞങ്ങൾ മാറ്റി വരുവാണപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി മൈൻഡ് ഒക്കെയാവാൻ വേണ്ടീട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ട്രിപ്പ് അവളേം കൊണ്ടന്നെ പോണെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പം മൈൻഡോക്കെയാവൂലോ എക്സമൊക്കെ ആമ്പത്തേന് അവൾ മൈൻഡൊന്നും കൂടെ ക്ലിയർ ആയാൽ എക്സാമ് കുറച്ച്കൂടി നന്നാക്കി എഴുതാൻ പറ്റുന്നുള്ളൊരു വിശ്വസം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ആ മൂന്ന് ദിവസത്തെ മതി മിസ്സേ മൂന്ന് ദിവസത്തേത് മതീട്ടോ ഞാൻ വിളിക്കാട്ടോ മിസ്സേ ശരി